എൻ്റെ അതിഥികളെ ഞാൻ കൊണ്ടു പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാല് അഞ്ച് പ്ലെസുണ്ട് ഒന്ന് പൊന്മുടി കോവളം കന്യാകുമാരി വേളാങ്കണ്ണി എന്നിവയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പൊന്മുടി ഇപ്പം കൊണ്ടു പോകാനുള്ള കാരണം എന്നു പറയുന്നത് നല്ല നീർച്ചാലുള്ള വഴിയേ നടന്ന് ഒരു കുന്നിൻ്റെ മുകളിൽ പച്ച പരവതാനികളൊക്കെ വിരിച്ച കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ നാട് തന്നെ മൊത്തവും കാണാൻ കഴിയുന്ന പ്രകൃതി രമണീയമായ ഒരു കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് അവരെ നമ്മുടെ നാടിനെപ്പറ്റി കാണിക്കുവാനും നാടിനെപ്പറ്റി കൂടുതൽ അവരോട് പറയുവാനുമായിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് അവിടെ തെരഞ്ഞെടുക്കുക രണ്ടാമതായിട്ട് കന്യാകുമാരി കന്യാകുമാരി വരുന്നതിന് നമുക്ക് ഉല്ലസിക്കാനായിട്ട് ബീച്ചുകളുണ്ട് ഷോപ്പിംഗിനായിട്ടുള്ള അവസരങ്ങളുണ്ട് അതുപോലെ ബോട്ടിങ്ങിനുള്ള അവസരങ്ങളുണ്ട് വിവേകാനന്ദ പ്രസിദ്ധമായ വിവേകാനന്ദ പാറയുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് അത് വേളാങ്കണ്ണി തീർത്ഥാടനം വേളാങ്കണ്ണീ നമുക്ക് വിശുദ്ധ അമ്മയുടെ തീർത്ഥാടനമാണ് അവിടെ വിശുദ്ധമായതും എല്ലാം നിർവഹിക്കുന്നു ഉദ്ധിഷ്ഠ കാര്യങ്ങൾ സാധിച്ചു തരുന്ന അമ്മയുടെ അടുത്തേക്ക് വേളാങ്കണ്ണി പള്ളിയിലേക്ക് അവരെ കൊണ്ട് പോവാൻ അനേകായിരങ്ങൾ വരുന്ന പുണ്യ തീർത്ഥത്തിലേക്ക് കൊണ്ടു പോവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പിന്നെ കോവളം ബീച്ചിലേക്ക് കോവളം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമാണ് അവിടെയുള്ളവ പ്രകൃതി രമണീയമായ കടലുകളും ഒക്കെ നമുക്ക് അതിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് നല്ല ഇതെല്ലാം നമുക്ക് കിട്ടുന്നു കാറ്റ് നല്ല തിരമാലകളാലും പ്രകൃതി രമണീയമായ സ്ഥിതികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നെയ്യാർ ടൂറിസം നെയ്യാറിലാണേലും ഗോപുരങ്ങളുണ്ട് നമുക്ക് അവയെപ്പറ്റി ഒത്തിരി പറഞ്ഞു കൊടുക്കുവാനായിട്ടുണ്ട് ഈ നെയ്യാർ അല്ലെങ്കിൽ കന്യാകുമാരിയൊക്കെ അവർക്ക് ഒന്നും അറിയാത്തവർക്ക് കൊണ്ട് പോകാനായിട്ട് അവിടെ വേളാങ്കണ്ണിയാണേലും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും കോവളത്ത് ഹോട്ടലുകൾ കോവളത്തെ ബീച്ചുകൾ അത് ദയനീയമായ ഒന്നാണ് അവിടേക്ക് നമുക്ക് ഹോട്ടലുകളും അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കുന്നിൻ ചെരിവുകൾ അവിടെയുള്ള പ്രശസ്തമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അവിടെയും അവർക്ക് കുളിക്കുവാൻ അല്ലെങ്കിൽ ഉല്ലസിക്കുവാൻ എല്ലാവിധമായ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് കോവളം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ആൾക്കാരുകളെ കൊണ്ട് പോകാനും ഇവരെ കൊണ്ടു വരുവാനും ഉള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ആ സ്ഥലം എല്ലാത്തിനും നല്ല സ്ഥലമാണ് കോവളം ബീച്ച് കന്യാകുമാരി കന്യാകുമാരി വളരെ പ്രശസ്തമായ വിവേകാനന്ദ പാറ ആരും കണ്ടാൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനും അത് കാണാനുമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അതിനെ കാണുന്നത് വിശുദ്ധമായ സ്ഥലമുണ്ട് അല്ലാത്ത സ്ഥലമുണ്ട് പ്രകൃതി രമണീയമായ ഭംഗിയുള്ളവയുണ്ട് ഇവയെല്ലാം നമുക്ക് ആവശ്യമായിട്ട് എല്ലാവരെയും കാണിക്കുവാനായിട്ട് അതിനുള്ളതാണ്